ഞങ്ങളുടെ സംസ്കാരത്തില് നെറ്റിയിൽ കുങ്കുമം തൊടുക എന്നുള്ള ആചാരം എന്ന് പറയുന്നത് സാധാരണ സുമങ്കലി ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും കൂടുതലും നെറ്റിയിൽ കുങ്കുമം തൊടുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന് ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ടാണ് സ്ത്രീകള് നെറ്റിയിൽ കുങ്കുമം തൊടുന്നത് ഇതിന് പല ശാസ്ത്രീയമായ വശങ്ങളുമുണ്ട് നമ്മുടെ വിയർപ്പിനെ ബാഷ്പീകരിക്കാൻ വേണ്ടിട്ടും നമ്മള് നെറ്റിയിൽ കുങ്കുമം തൊടുന്നുണ്ട് അതുപോലെ തന്നെ പൂണൂല് ധരിക്കുന്നത് നമ്പൂതിരിമാരോ ബ്രാഹ്മണരോ ആണ് പൂണൂൽ ധരിക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവരാണ് സാധാരണയായി പൂണൂൽ ധരിക്കാറുള്ളത് ഇത് അവരുടെ ഒരു ഐഡൻടിറ്റിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തില് പൂജയ്ക്ക് പോകല് നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ളൊര് എനർജി കടന്ന് വര് കടന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ക്ഷേത്രത്തില് പോകുന്നത് അതുപോലെ തന്നെ നോമ്പ് അല്ലെങ്കിൽ ഉപവാസങ്ങളെടുക്കൽ ക്രിസ്ത്യൻസ്സായാലും മുസ്ളീംസ്സായാലും ഹിന്ദുക്കളായാലും എല്ലാവരും നോയമ്പ് എടുക്കുന്നു ക്രിസ്ത്യൻസ്സ് ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാത്തിനും നോയമ്പ് എടുക്കുന്നു ഇത് പോലെതന്നെ മുസ്ളീംസ്സും അവരുടെ പല ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടും നോയമ്പ് എടുക്കുന്നു ഹിന്ദുക്കള് ഒരു ദിവസത്തെ ഉപവാസമോ നൊയമ്പുകളോ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എടുക്കാറുണ്ട് ഇതിനും പല ശാസ്ത്രീയ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുവുണ്ട് നോയമ്പ് എടുക്കുന്നതിലൂടെ അല്ലെങ്കിലുപവാസത്തിലൂടെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നുംകൂടി മെച്ചപ്പെടാൻ സഹായിക്കുന്നു കാരണം നമ്മള് ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കുന്നതിലൂടെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് കൂടി പുഷ്ടിപ്പെടുകയും അതോപോലെ തന്നെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സംസ്കാരങ്ങളെല്ലാം ഉള്ളത്